ഞാൻ പ്രാദേശികമായി പ്രാദേശിക തലത്തിലൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട് കോൺടെസ്റ്റിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിരുന്ന കോൺടെസ്റ്റിൽ ഒക്കെ ഞാൻ അധികവും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് പങ്കെടുത്തിട്ടും ഉണ്ട് അതേപോലെ അവസാനമായിട്ട് കോളേജ് തലത്തിലാണ് പങ്കെടുത്തത് കോളേജ് തലത്തിലുള്ള ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിനാണ് പങ്കെടുത്തത് നാച്ചുറൽ ഫോട്ടോഗ്രാഫിയാണ് കണ്ടെൻറ്റ് ഉണ്ടായിരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത അതിന് വേണ്ടി എടുത്ത ഒരു ഫോട്ടോ എന്ന് പറയുന്നത് പാടത്ത് നിലം ഉഴുത് മറിക്കുന്ന ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുത് മറിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കർഷകൻ ഒക്കെ ആയിട്ട് കർഷകൻ ഈ പാള വെച്ചുള്ള തൊപ്പിയൊക്കെ ആയിട്ട് നെല്ല് വിതക്കുന്നതും വിത്ത് വിതകുന്നതും അതേപോലെ പാടത്ത് ഈ ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുത് മറിക്കുന്നതും ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫോട്ടോഗ്രാഫിയും അതിന് പറ്റിയ കണ്ടെൻറ്റ് മറ്റേ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൂടിയായിരുന്നു അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയതുമായിരുന്നു ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ച് ജില്ലാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും പോകാൻ ഒക്കെ ആഗ്രഹവും ഉണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നടക്കും എന്ന് വിചാരിക്കുന്നു